സാങ്കേതികവിദ്യയുടെ ഇൻ്റർനെറ്റിൻ്റെയും വളർച്ചയ്ക്കൊപ്പം മലയാളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഈ ആ പണ്ട് എറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചു കൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് ഈ നിൽക്കുന്നുണ്ടായിരുന്നു പഷേ ഇന്ന് ഇപ്പം ഇൻ്റർനെറ്റും ഒരു ഇൻ്റർനെറ്റൊക്കെ വന്നത് കൊണ്ട് എല്ലാം ആ വോയിസ് ആയിട്ട് വോയിസ് മെസ്സേജും ചാറ്റിംഗും ആയിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ സംസാര ം കുറഞ്ഞിട്ടുണ്ട് ആ പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യം അത് പരസ്പരം അങ്ങോട്ട് നേരിട്ട് കണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്ക നേരിട്ട് കണ്ടു സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ അത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഇതൊക്ക യൂസ് ചെയ്യുക തുടങ്ങിയതിന് ശേഷം നമ്മൾ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറഞ്ഞിരിക്കുകയാണ് എല്ലാം ഫോൺ വഴിയാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും

ഒക്കെയാണ് എറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് ഇൻ്റർനെറ്റ് വന്നതു കൊണ്ട് നമുക്ക് മലയാള ഭാഷയിൽ ഒരുപാട് ഉപയോഗങ്ങൾ ഇല്ലാതെ ആയി വന്ന മാറ്റം